ഇപ്പോഴത്തെക്കാലത്ത് ഇത് ശേഖരിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഇത് പണ്ടത്തെ കാലങ്ങളിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും അവർ ഇതൊരു ഹിസ്റ്ററി അല്ല ഇത് ഉള്ളത് തന്നെയാണെന്ന് മനസ്സിലാക്കുകയും കൊടുക്കുകയും ചെയ്യാം എന്നതാണ് ഇതു കൊണ്ടുള്ള ഉദ്ദേശം